ഇന്ത്യൻ സിനിമകളും സംഗീതവുമെല്ലാം ഏറ്റവും മികച്ചതാണ് എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സിനിമകളും സംഗീതങ്ങളും വെച്ചു നോക്കുമ്പോൾ നമ്മളുടെ സംഗീതവും സിനിമകളും ഒക്കെ കുറെ മെച്ചപ്പെട്ടതാകുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നതാകുന്നു ഇപ്പോൾത്തന്നെ നോക്കാം ഓരോ സിനിമകളും ഇപ്പോൾ മാറി ഇന്ത്യൻ സിനിമ ആകെ മാറി സംഗീതമാകട്ടെ എല്ലാം മെച്ചപ്പെട്ടതായി എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കേട്ടാൽ ഇഷ്ടപ്പെടുന്നതാണ് ഇന്ത്യൻ സിനിമകളും സംഗീതവുമെല്ലാം എല്ലാ കാര്യത്തിലും ഇന്ത്യൻ സിനിമയെ എനിക്കിഷ്ടമാണ് ഞാനെല്ലാ തരം സിനിമകളും കാണാറുമുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സൂര്യയാണ് തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച നടൻ എന്തുകൊണ്ടും മികച്ച നടൻ അദ്ദേഹത്തിൻ്റെ മൂവീസുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ അദ്ദേഹം എടുക്കുന്ന എല്ലാ കണ്ടന്റും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാകുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട നടി തമന്ന ബാട്ടിയ തമന്നയുടെ സിനിമകളായിക്കോട്ടെ സൂര്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതു അടിപൊളിയാണ് എന്തുകൊണ്ടും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടി തമന്ന ബാട്ടിയയാണ് എന്റെ ഇഷ്ടമുള്ള ഗാനങ്ങൾ ഹിന്ദിയിലെ കുറെ ഗാനങ്ങളുണ്ട് ഒന്ന് ഹം തേരെ ബിൻ ഹബ് ഫിർ ഹബ് ക്യാ ചാഹിയെ മലയാളത്തിലാണെങ്കിൽ ഒട്ടേറെ സോങ്ങുകളുണ്ട് സംഗീതങ്ങളുണ്ട് എല്ലാം എനിക്കിഷ്ടമാണ് എല്ലാതരം സോങ്ങുകളും ഞാൻ കേൾക്കും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അർജിത്ത് സിങ്ങ് ആണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വളരെ മികച്ചതാണ് നമ്മൾ കേട്ടിരുന്നു പോകും